എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരനും സംഗീത സംവിധായകനുമാണ് തമിഴിലെ അനിരുദ്ധ് രവിചന്ദർ എന്ന ആൾ വളരെ മനോഹരമായ ഗാനമാണ് പ്രത്യേകിച്ച് സിനിമകളൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ പുള്ളിയുടെ ബി ജി എം ഒക്കെ നമുക്ക് ഒരുപാട് ആവേശം തരുന്നു സിനിമയുടെ ആ ഒരു സെൻസ് മനസ്സിലാക്കുന്ന അതിൻ്റെ ഒരു ഫീൽ തരുന്നതുമായൊക്കെ നല്ല സൂപ്പർ ബി ജി എം ആണ് അനിരുദ്ധ് രവിചന്ദറിൻ്റെ അദ്ദേഹം നമ്മുടെ തമിഴിലെ ത്രീ എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് അതില് വൈ ദിസ് കൊലവെറി ടീ എന്നുള്ള ഗാനം അന്നേ ഞാനൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഭയങ്കര പോപ്പുലറും ഹിറ്റും ആയ പാട്ടാണ് അന്ന് മുതലാണ് രവിചന്ദറും അശ്വിൻ രവിചന്ദറിനെ ഇഷ്ട അനിരുദ്ധ് രവിചന്ദറിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് പിന്നെ അനിരുദ്ധിൻ്റെ പാട്ടുകൾ എല്ലാം ഇപ്പം സിനിമയുടെ സ്റ്റോറി ബ്ലാക്ക്ള്ബ് ബാക്കപ്പ് ഒക്കെ അത്ര നല്ലതല്ലെങ്കിലും പുള്ളിയുടെ ഗാനങ്ങൾ എല്ലാം വളരെ ഹിറ്റ് ആവാനും പോപ്പുലർ ആവാനും യൂട്യൂബിലൊക്കെ ഒരുപാട് വ്യൂസ് കിട്ടാനൊക്കെ ഇടയായിട്ടുണ്ട് വെറും മുപ്പത്തിമൂന്ന് വയസ്സുള്ള അദ്ദേഹത്തിന് ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വളരെ പ്രേക്ഷക ശ്രദ്ധയും പ്രശസ്തിയും ആർജിക്കാൻ സാധിച്ചു